ഇന്ത്യൻ തൊഴിൽ വിപണി എന്നു പറയുന്നത് ഒരുപാട് വെല്ലുവിളികളും അതോടൊപ്പം തന്നെ ഒരുപാട് അവസരങ്ങളും നിറഞ്ഞതു തന്നെയാണ് ഇപ്പം പഠിച്ചിറങ്ങുന്ന ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഒരു പൊതുവിലുള്ളൊരു ആശങ്ക എന്നു പറയുന്നത് ഇന്ത്യയിൽ നിന്നു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു നല്ല ജോലി കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാം പ്രത്യേകത അവർക്ക് ഏറ്റവും പെട്ടെന്ന് സെറ്റിൽഡാവണം എന്നാഗ്രഹിക്കുന്നാണ് ഏറ്റവും നല്ല സാലറിയിലെ ഏറ്റവും പെട്ടെന്നു സെറ്റിൽഡാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ ഒരു പൊതുസമൂഹം എന്നു പറയുന്നത് അല്ലെങ്കിൽ കുട്ടികളെന്നു പറയുന്ന അല്ലെങ്കിൽ യങ്സ്റ്റേർസ് എന്നു പറയുന്നത് അതുകൊണ്ടു തന്നെ അവർ അവസരങ്ങൾ പലപ്പോഴും തേടി പോകാറില്ല അവരുടെ വിചാരം പുറത്താണ് അല്ലെങ്കിൽ എബ്രോഡാണ് അവരെ കാത്തിരിക്കുന്ന അവസരങ്ങള് കൂടുതൽ കാത്തിരിക്കുന്നത് കൂടുതൽ സെറ്റിൽഡാകാനുളള എളുപ്പം പുറത്താണ് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജോലികൾ കുട്ടികൾക്കായിട്ട് ഉണ്ട് ഇപ്പം ഗവൺമെൻറ്റ് ജോലികളാകട്ടെ പത്താം ക്ലാസ് തോറ്റവർക്കും പ്ലസ് ടു ഫെയിൽ ആയവർക്കും അല്ലെങ്കിൽ ഇനിയങ്ങോട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർക്കും ഗവൺമെൻറ്റ് ജോലികൾ തന്നെ പി എസ് സി എക്സാം വഴി എഴുതുകയാണെങ്കിൽ ഗവൺമെൻറ്റ് ജോലികൾ തന്നെ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പെയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ സിവിൽ സർവീസിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാദ്ധ്യതകളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ജോലി സാദ്ധ്യതകളുണ്ട് അതുപോലെ തന്നെ ചില എന്താ പറയുക ടീച്ചിങ് ഫീൽഡിൽ ഒരുപാട് ജോലി സാദ്ധ്യതകളുണ്ട് ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇന്ത്യയിൽ തന്നെ കുട്ടികളുടെ ഇടയിൽ ഉണ്ട് എല്ലാ മേഖലകളിലും കുട്ടികളുടെ ഇടയിൽ ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ് നേടാൻ ആണെ ഓൻറ്റ്റപ്രനർ ആകാനാണെങ്കിലും ഒരുപാട് ഗവൺമെൻറ്റ് സബ്സിഡികളും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള പലിശരഹിത വായ്പകൾ പോലെയുള്ള ഒരുപാട് സജ്ജീകരണങ്ങൾ ഗവൺമെൻറ്റ് ഇന്ന് ഇന്ത്യയിൽ ചെയ്തു കൊടുക്കാറുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അവസരങ്ങൾ ഈ ഇന്ത്യയിൽ തന്നെ ആവോളം കുട്ടികൾക്കുണ്ട് എന്നാൽ ഇവരെ നേരിടുന്ന ചില പ്രധാന വെല്ലുവിളികൾ എന്നു പറയുന്നത് സാലറി പാക്കേജ് ഒന്നാമത്തത് സാലറി പാക്കേജാണ് പുറത്തു ലക്ഷങ്ങൾ മണിക്കൂറിനു ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിക്കുന്ന ചില ജോലികൾ ഇവിടെ അവർക്ക് ചെയ്യ് അല്ലെങ്കിൽ അങ്ങനെ ലക്ഷങ്ങൾ എന്നു പറയുന്ന ഒരു സാലറിയിലേക്ക് അവർ എത്തിപ്പെടണമെന്നില്ല പല കമ്പനികളിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് അപ്പ് തുടങ്ങുമ്പോഴത്തേനും ചിലപ്പം നിശ്ചിത അല്ലെങ്കിൽ നിസ്സാരമായ തുക മാത്രമായിരിക്കും അവർക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ സാലറി പാക്കേജ് എന്നു പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യൻ വിപണിയിലെ കുട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് അതുപോലെതന്നെ ഇവർക്കുള്ള അതായത് സാഹചര്യങ്ങൾ ഒരുപാട് പേർ വന്നു കഴിയുമ്പോഴത്തേനും ഏറ്റവും കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ പിന്തള്ളപ്പെടുക പല ഇപ്പം ഗവൺമെൻറ്റ് ജോലിക്കാണെങ്കിലും പിൻവാതിൽ നിയമനങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് കുട്ടികൾക്കു തോന്നുന്നുണ്ട് അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ജോലി നാട്ടിൽ കിട്ടാതെ വരുമ്പോൾ പുറത്തു പോയി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ജോലി ചെയ്തു കാശുണ്ടാകുന്ന ഉണ്ടാക്കുക എന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തി ചേരുന്നു അതൊക്കെയാണ് പ്രധാനമായും ഇന്ത്യൻ വിപണി അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ നിലവിൽ നേരിടുന്ന ചില വെല്ലുവിളികൾ